ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് നേരമൊന്നും വർക്കൌട്ട് ചെയ്യാറില്ല എല്ലാം കൃത്യനിഷ്ഠയുള്ള വർക്ക് ഔട്ടിങ്ങ് ആയിരിക്കും കറക്റ്റ് രാവിലെ ഇത്ര മണിക്ക് എണീക്കുക അതേ പോലെ ഇത്ര മണിക്കൂർ ഉറക്കം അതേ പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇത്ര മണിക്ക് ഒരു ഒൻപത് മണി പത്ത് മണിക്ക് ആകുമ്പോൾ കിടന്നു പറഞ്ഞാൽ രാവിലെ ഇത്ര മണി എട്ട് മണിക്കൂർ ആറ് മണിക്കൂർ മിനിമം ഉറങ്ങണപോലെ അത് കഴിഞ്ഞു പറഞ്ഞാൽ രാവിലെ എണീച്ചു പറഞ്ഞാ രാവിലത്തെ വ്യായാമങ്ങൾ എക്സർസൈസ് കാര്യങ്ങൾ ജിം വർക്കൌട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇതേ പോലെ പോഷകാഹാരങ്ങൾ കൂടുതൽ വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് മാംസം കാര്യങ്ങളൊക്കെ കലോറി അടങ്ങിയിട്ടുള്ള ഫുഡ് ഇതൊക്കെ ആവശ്യത്തിന് ഒരുപാടും ആവാൻ പാടില്ല എന്നാൽ ഒരുപാട് കമ്മി ആവാനും പാടില്ല എല്ലാം കറക്റ്റ് ഡയറ്റ് പ്ലാനിൽ കൊണ്ട് നടക്കും അത് പോലുള്ള നമ്മളിപ്പോൾ ഇപ്പോൾ വർക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് മാത്രം വർക്ക് ഔട്ട് അത് കഴിഞ്ഞാൽ റസ്റ്റ് വേണ്ട സമയത്ത് റസ്റ്റ് അതേപോലെ ഫ്രൂട്ട്സ് കഴിക്കേണ്ട സമയത്ത് ഫ്രൂട്ട്സ് അതേപോലെ വെള്ളം കുടിക്കേണ്ട സമയത്ത് മൂന്ന് ലിറ്ററ് മൂന്നര ലിറ്റർ ഡെയിലി വെള്ളം കുടിക്കണം നന്നായി വെള്ളം കുടിക്കണം അതേ പോലെ ഈ കാര്യങ്ങൾ ഒക്കെ കറക്റ്റ് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം നല്ല രീതിയ്ക്ക് മെച്ചപ്പെടുത്താനും നന്നായി കൊണ്ടുപോവാനും സാധിക്കും